ഹലോ മാം വെൽക്കം റ്റു ദ വില്ലേജ് ഹോം അതെ ഓക്കെ മാം ഡെഫെനിറ്റിലി ഐ സ്പീക്ക് ഫസ്റ്റ് മിക്സിയെന്നല്ലെ പറഞ്ഞത് ആ മിക്സി നമുക്ക് പ്രസ്റ്റീജിൻ്റെയുണ്ട് പീജിയൻ്റെയുണ്ട് ബജാജിൻ്റെയുണ്ട് സുജാത മിക്സിയുണ്ട് ഇതിലേതാണ് മാമിന് ഏറ്റവും കൂടുതല് ഇൻസ്പെയറായിട്ട് ആ ഉണ്ട് ഉണ്ട് മാം എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചാല്മതി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിലേക്ക് അയച്ചുതരുന്നതായിരിക്കും നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് റേറ്റെന്ന് പറയുന്നത് അതിലിപ്പോള് ഡിസ്കൗണ്ട് അനുസരിച്ച് ഫിഫ്റ്റി പേസൻറ്റേജ് ഡിസ്കൗണ്ടുണ്ട് പിന്നെ അതില് ആറു മാസം സർവീസ് ഫ്രീ ആയിരിക്കും

ഇതും കുഴപ്പമില്ല മാമിൻ്റെ രീതി അനുസരിച്ച് ഇതിലേക്കും വരാം

ഉണ്ട് ഉണ്ട് ഓക്കെ മിക്സിയുടെ അനുസരിച്ച് നമുക്ക് അതുകഴിഞ്ഞിട്ടുള്ള സർവീസ് ഫ്രീയാണ് അതിന് ഡിസ്കൗണ്ടുണ്ട് രണ്ടാഴ്ചത്തെ ഡെലിവറി ഇപ്പോള് ഓൺലൈനാണെങ്കില് ഡെലിവറി ഫ്രീയാണ് എല്ലാ കളറുമുണ്ട് ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ടായി പോകുന്നത് ബ്ലാക്കും റെഡുമാണ് ആ കോമ്പിനേഷൻ വരുന്ന കളറാണ് മാമിനേതാണ് ആ ഡെഫ്നിറ്റ്ലി വൈറ്റ് അവൈലബിളാണ്

ജാര് ആ മൂന്നു ജാറുമുണ്ട് അതിൻ്റെ കൂടെ ഒരു ഫ്രീയായിട്ട് എന്തോ ഒരു

കെറ്റിലുമുണ്ട് ഫ്രീയായിട്ട് കിട്ടുന്നുണ്ട് മാം ഓൺലൈൻ ഷോപ്പ് ചെയ്യാനാണോ നോക്കുന്നത് അതോ മൈ ജിയിലേക്ക് വരുന്നുണ്ടോ വന്ന് വാങ്ങുകയാണെങ്കില് ഡിസ്കൗണ്ടുണ്ടായിരുന്നു

ഓക്കേ ഇനി ഏതാണ് മാമിനു വേണ്ടത് മിക്സിയും ഗ്രൈൻഡറുമല്ലെ ആ ഗ്രൈൻഡർ ഏതാണ് വേണ്ടത് എല്ലാ കമ്പനിയുടെയുമുണ്ട് മാം സേം പ്രൊസീജേസുണ്ട് ഡിസ്കൗണ്ടുണ്ട് എല്ലാമുണ്ട് ഓ സേം ബ്രാൻഡ് തന്നെ ഓക്കേ ഏത് അതില് അതിന് ഏറ്റവും കൂടുതല് പർപ്പിൾ വൈറ്റ് കോമ്പിനേഷനോടെയുള്ള കളറാണ് ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ടായി പോകുന്നത് ആ അതിപ്പോള് ഇനി രണ്ട് പീസ് രണ്ട് സെറ്റേയുള്ളൂ അപ്പം മാം നേരിട്ട് വന്ന് വാങ്ങുകയാണെങ്കിൽ കിട്ടും അല്ലെങ്കില് അത് പെട്ടെന്ന് തീർന്നുപോകുമായിരിക്കും ഓക്കേ അതിന് ഫ്രീയായിട്ട് ചെറിയൊരു ഇൻഡക്ഷൻ കുക്കർ കിട്ടുന്നുണ്ട് മ്മ് പിന്നെ രണ്ടാഴ്ചത്തെ സർവീസുണ്ട് രണ്ടാഴ്ചത്തെ ഫ്രീ സർവീസ് മ്മ് അതുപോലെ തന്നെ പിന്നെന്താണ് ഡിസ്കൗണ്ടുണ്ട് അറുപത് ശതമാനം ഡിസ്കൗണ്ടുണ്ട്